നമ്മള് മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം വള്ളത്തേലാണ് മീൻ പിടിക്കാൻ പോകുന്നത് ബോട്ടൊക്കെയായിട്ട് പോകുമ്പോൾ നമ്മളാദ്യം പ്രാർത്ഥിക്കും പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീൻ നല്ല ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമ്മുടെ ഈ വള്ളം നിറച്ച് വല വള്ളത്തേൽ നിന്ന് വല വീശുമ്പോൾ ഈ മീൻ വള്ളം നിറച്ച് കിട്ടും അങ്ങനെ പെട്ടെന്ന് വരില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മീനുവായിട്ട് വരികയുള്ളു അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രം മീൻ കിട്ടുകയുള്ളു പിന്നെ ഈ തീരത്തൊന്നും ഉണ്ടാവില്ല ഉൾക്കടലിലേക്ക് പോയെങ്കിൽ മാത്രമാണ് മീൻ വലവീശി മീൻ കിട്ടുകയുള്ളു ഉൾക്കടലില് ചുഴിയൊക്കെ നോക്കി നമ്മള് മുമ്പോട്ട് നീങ്ങണം അങ്ങനെ രണ്ടും മൂന്നും ചിലപ്പോൾ ഒരാഴ്ച്ച ഒക്കെ കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ് ഈ വള്ളത്തില് നിന്നിട്ട് ആൾക്കാര് വല എറിഞ്ഞ് മീന് കൊണ്ട് ചിലപ്പോൾ അവർക്ക് വലിച്ച് വല എടുക്കാൻ പറ്റുകയില്ല ഫുൾ മീനായിരിക്കും നല്ല പിടയ്ക്കുന്ന സൈസ്സ് മീൻ എന്നിട്ട് തിരിച്ച് അവര് വള്ളത്തില് മീനൊക്കെ ഇട്ട് അവര് എത്രയോ വിഷമിച്ച് പ്രയാസപ്പെട്ട് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവര് തിരിച്ച് വരും തിരിച്ച് വന്നിട്ട് ഈ മീന് പുറത്തെടുത്ത് വള്ളം കെട്ടിയിട്ടിട്ട് അവര് മീൻ കോരി കോരി കുട്ടയില് കോരി പുറത്തേക്കെടുക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് ഐസൊക്കെ ഇട്ട് നമുക്ക് അവര് തരുന്ന മീനാണ് നമുക്ക് തരുന്നത്